എൻ്റെ ഉപജീവന മാർഗ്ഗം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ പിന്നെ വീട്ടിൻ്റെ പുറത്തുപോയി എനിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തത്കൊണ്ട് ഞാൻ വീട്ടിലെനിക്ക് മഷീനുണ്ട് അപ്പോൾ അതിലെന്തെങ്കിലും സ്റ്റിച്ച് ഇപ്പോൾ പുറത്തു നിന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയ്പ്പ് ഇപ്പോൾ നെറ്റിയാണെങ്കിലും ചുരിദാർ ആണെങ്കിലും എന്തെങ്കിലും ഷെയ്പ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ അതിവിടെ കൊണ്ട് വന്നാൽ ഞാൻ ഷെയ്പ്പ് ചെയ്തു കൊടുത്ത് ഒരു അൻപതോ നൂറോ രൂപ വാങ്ങാറുണ്ട് പിന്നെ അതുപോലെ ചെറിയ കുട്ടികൾക്ക് ഉടുപ്പ് തയ്ച്ചു കൊടുക്കും പിന്നെ ചുരിദാർ അടിച്ചുകൊടുക്കും അപ്പോൾ അതിൻ്റെ ഒരു പുറമെ പുറത്ത് ടൗണുകളിൽ നിന്നും സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നതിലിപ്പോൾ നാനൂറ് നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാറ് എന്നാൽ ഇവിടെ നിന്ന് ഒരു മുന്നൂറ് രൂപയ്ക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറ് പിന്നെ അധികം എനിക്ക് ഞാൻ ന നന്നായിട്ട് ഫാഷനബിൾ ആയിട്ടൊന്നും തൈക്കില്ല എന്നാൽ പോലും സാധാ ചുരിദാറ് നെറ്റി അതൊക്കെ തൈക്കാനറിയാം ആ രീതിയിലാണ് തൈച്ചുകൊടുക്കാറ് ഇതെൻറ്റൊരു ചെറിയൊരു ഉപജീവന മാർഗ്ഗം കൂടിയാണിത് ഇപ്പോൾ വീ നമ്മൾ വീടും നോക്കണം അതുപോലെ ഉപ നമ്മുടെ കാര്യവും നോക്കണ്ടേ അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു ചെറിയ ഒരു ഉപജീവന മാർഗ്ഗം എനിക്കുണ്ട്